നമ്മുടെ പ്രദേശത്ത് കലയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇപ്പോൾ സർക്കാർ ആയിക്കോട്ടെ പലതരത്തിലുള്ള സംഘടനകളും എല്ലാ രീതിയിലും അതായത് ധനസഹായം ആയിട്ടാണെങ്കിലും എല്ലാതരത്തിലും പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള സംഘടനകളും മുന്നോട്ടു വന്നിട്ടുണ്ട് സർക്കാരാണ് ഇതിന് പ്രധാനമായിട്ട് പങ്കുവഹിക്കണത് അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടില് എന്താ പറയുക ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കില് കലാമണ്ഡലം തൃശ്ശൂരുള്ള കലാമണ്ഡലം ആണെങ്കില് അത് സർക്കാരിൻ്റെ ഇതിൽ നടത്തുന്നതാണ് കലയെ കലയെ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പലതരത്തിലുള്ള കുട്ടികളും അവിടെ വന്നിട്ടുണ്ട് അതുപോലെതന്നെ അങ്ങനെയുള്ള കുട്ടികള് കലയെ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അവസരം എന്ന രീതിയിലാണ് അവിടെ കലാമണ്ഡലം എന്ന് ഒരു ഇത് തുടങ്ങിയിട്ടുള്ളത് കലാമണ്ഡലത്തില് എല്ലാ തരത്തിലുള്ള പ്ര പ്രാചീന കലകൾ ആണെങ്കിലും എല്ലാ തരത്തിലുള്ള കലകളും കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെതന്നെ അതുപോലെതന്നെ പറയുകയാണെങ്കില് ഇതുപോലെ സർക്കാരും സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ പലതരത്തിലുള്ള ആളുകൾ ആളുകളും ഇപ്പോൾ നമ്മള് നോക്കുകയാണെന്ന് ഉണ്ടെങ്കില് ഇപ്പോൾ ഒരു സ്കൂളില് എടുത്തു നോക്കുകയാണെങ്കില് അല്ലെങ്കിൽ ഒരു കോളേജിൽ എടുത്ത് നോക്കുകയാണെന്ന് ഉണ്ടെങ്കില് അവിടെ പലതരത്തിലുള്ള ക്ലബ്ബുകളാണ് ക്ലബ്ബ് പിന്നെ ലൈബ്രറി ക്ലബ്ബ് അങ്ങനെ പലതരത്തിലുള്ള ട്രബ് ക്ലബ്ബുകൾ ഉണ്ടാകുമല്ലോ പാലിയേറ്റ് ക്ലബ് ഇങ്ങനെയുള്ള ആളുകളും ഒരു ഭാഗം ആളുകളും കലയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ നമ്മള് പറയാണെന്നുണ്ടെങ്കില് ഇപ്പോൾ കോളേജില് ലൈബ്രറി ക്ലബ്ബ് ഓരോ ക്ലബ്ബുകളും ഇൻഡിവിജ്വലി ഓരോരോ പരുപാടികൾ നടത്തും അപ്പഴും ഇതുപോലെ തന്നെ കലയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവര് പല രീതിയിലുള്ള പരുപാടികൾ മുന്നോട്ടുവയ്ക്കുകയും കലാരൂപങ്ങള് പുറത്ത് കൊണ്ടുപോയി ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ അങ്ങനെയുള്ള പരിപാടികളുടെ എല്ലാതരത്തിലുള്ളതും വയ്ക്കാറുണ്ട് മത്സരങ്ങൾ ആയിക്കോട്ടെ എല്ലാം വയ്ക്കാറുണ്ട് അതിന് അവര് തന്നെ സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതാണ് പലതരത്തിലുള്ള രീതിയില് ഈ സപ്പോർട്ട് വരുന്നുണ്ട് കലയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെതന്നെ നമ്മുടെ വേറെ തര വേറെ തരത്തിലുള്ള ഓരോരുത്തര് സ്വയം ഇഷ്ടപ്രകാരം കലയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് കുറെ പൈസ അവരുടെ കയ്യിൽ നിന്ന് ഇടുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഒന്നുമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കില് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കല പഠിക്കാൻ കലയെ പറ്റി കൂടുതൽ അറിയാനും ഡാൻസോ പാട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കില് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക പലതരത്തിലുള്ള ഓർഗനൈസേഷൻസും അതുമാത്രമല്ല പലരും അവരെ സപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവ്യൂജലി അവരെ അറിഞ്ഞിട്ട് അവർക്ക് നേരിട്ട് പൈസ കൊടുത്തിട്ട് അവർ അങ്ങനെ സഹായിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അത് അതാണ് കലയെ സപ്പോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ സർക്കാർ ആയിക്കോട്ടെ ഏതുതരത്തിലുള്ള ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ അവരെപ്പോഴും ഉത്സാഹിച്ചുകൊണ്ടിരിക്കും കലയെ സപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്